പല രീതിയിലാണ് വിവാഹ കൂടിക്കാഴ്ചകൾ നടക്കുന്നത് പലതും ഇന്ന് പത്രത്തിൽ പരസ്യമിടുന്നവരുണ്ടാവും മാട്രിമോണികളിലൂടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെ പറഞ്ഞ് അറിയുന്ന ഉണ്ടാകും അപ്പം ഉദാഹരണത്തിന് മാട്രിമോണികളിലൂടെയാണെങ്കിൽ നമ്മളാദ്യം അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുന്നു എനിക്ക് നിങ്ങളുടെ കുട്ടിയെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മങ്ങളെ താല്പര്യപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ പേരെൻറ്റ്സായിരിക്കാം അവൻ്റെ ഈ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നേരിട്ട് അവൻ്റെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ഇവൻ തന്നെയായിയിരിക്കാം അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥി തന്നെയായിരിക്കും ഇത് ഹാൻഡില് ചെയ്യുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങോട്ടൊരു റിക്വസ്റ്റ് നമ്മളയക്കുന്നു അവർ നമ്മുടെ പ്രൊഫൈൽ കയറി സന്ദർശിക്കുന്നു എന്നിട്ട് ഇതിൽ അവർക്കും താല്പര്യമാണെങ്കിൽ അവർ തിരിച്ച് ആ നമ്മുടെ അയച്ച സന്ദേശം അവർ ആക്സെപ്പ് ചെയ്യുന്നു തുടർന്ന് നമ്മൾ നേരിട്ട് ഫോൺ വിളിക്കുന്നു എന്നിട്ട് ഇന്ന ദിവസം അങ്ങോട്ട് വരാൻ എത്തിച്ചേരാമെന്ന് പറയുന്നു അതിനു ശേഷം ഒന്ന് അങ്ങോട്ട് എത്തിച്ചേരുന്നു അവിടുത്തെ വീട്ടു പാടും ചുറ്റുപറ്റങ്ങളും ആളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നിട്ട് നമുക്ക് താല്പര്യമാണെങ്കിൽ അവരോട് വീണ്ടും നമ്മുടെ ഭവനത്തിലോട്ട് വന്നു ചേരാൻ പറയും അതിന് ശേഷം അവര് വന്ന് കാണുന്നു ഇനി ഇത് ഈ രണ്ട് കൂടിക്കാഴ്ചകളും കൊണ്ടുതന്നെ ഏറെക്കുറെ കല്യാണം ഉറയ്ക്കുന്നു ഇനി ഈ രീതിയില് ഈ മേഖലയിലോട്ടൊക്കെ ചെറുക്കൻ്റെ വീട്ടിലാണ് കല്യാണം ഉറപ്പിക്കുന്നത് അപ്പം ചെറുക്കൻ്റെ മൊത്തം ബന്ധുക്കളെല്ലാം പെണ്ണിൻ്റെ വീടുകള് കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഒരു സന്ദർശനം കൂടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് നടത്തുന്നു എന്നിട്ട് പെണ്ണിൻ്റെ വീടും ആൾക്കാരെ എല്ലാം പരിചയപ്പെടുത്തുന്നു എന്നിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നു യാത്ര ചെയ്യുന്നു ഇനി അടുത്തത് ഓഫീഷ്യൽ ആയിട്ടുള്ള കല്യാണം ഉറപ്പീരാണ് അതിന് ബന്ധുക്കൾ എല്ലാവരും ചെറുക്കൻ്റെ വീട്ടില് വന്ന് കല്യാണം ഉറപ്പിക്കുന്നു